ഇന്നത്തെ സിനിമാ മേഖലയിലെ പുതിയ പുതിയ കലാകാരന്മാർ കാ നടികളും വെ വരുന്നുണ്ട് അവരെക്കുറിച്ചുള്ള ഗോസിപ്പുകളും നിരവധിയാണ് വരുന്നത് നമുക്ക് എല്ലാവരുടെയും സത്യാവസ്ഥ എന്താണെന്നറിയത്തില്ല പല പല ന്യൂസ് ചേനലുകളും പലരെക്കുറിച്ചും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് നല്ലതായിട്ടു സിനിമ ചെയ്യുന്നത് നല്ലതാണെന്നും നല്ലതെന്നു പറയുന്നവരും ഉണ്ട് അതു കൂടാതെ മോശം അഭിനയമാണ് അവരുടെ കേരക്ടർ കൊള്ളത്തില്ല അവര സ ഇതു കൊള്ളത്തില്ല ആക്ടിങ് കൊള്ളത്തില്ല അങ്ങനെ കുറേ കുറ്റപ്പെടുത്തലുകൾ പറയുന്നതായി ഉണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ നമുക്ക് ഒരാക്ടറെക്കുറിച്ചു വിലയി എങ്ങനെ വിലയിരുത്താൻ പറ്റുന്ന അവരുടെ സിനിമ കണ്ടിട്ട് എന്താണോ അവരെക്കുറിച്ച് അഭിപ്രായം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടൊ നല്ല ഇതാ കഥാപാത്രങ്ങളൊക്കെ ആണൊ കിട്ടുന്നത് വെച്ചാൽ നമുക്ക് അവരെക്കുറിച്ച് അങ്ങനെ വിലയിരുത്താനായിട്ടു പറ്റും മറ്റുള്ളവരുടെ ഗോസിപ്പുകളൊന്നും മറ്റുള്ളവർ പറയുന്നതു കേൾക്കാതെ നമുക്ക് ഓരൊരുത്തരുടെ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ടു സാധിക്കുന്നതാണ്